ഹലോ ആ ട്രാവൽ ഏജൻസി ആ ആയിക്കോട്ടെ മാഡം പറഞ്ഞോളൂ ക്ലൈമറ്റ് മാഡം മഴ ആയതുകൊണ്ട് പകുതി സ്ഥലങ്ങളും നമ്മളിപ്പോൾ ഇവിടെ അവൈലബിൾ അല്ല നമ്മൾക്കിപ്പം വരികയാണെങ്കിൽ നമ്മൾക്ക് ഇടക്കൽ കേവൊക്കെ പോവാം പിന്നെ നമുക്ക് കൂടുതലും അങ്ങനെ കുറുവ ദ്വീപ് അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെയാണ് പോകുവാൻ പറ്റുക ആ കൂടുതൽ ഈ എന്താ പറയുക ഡാമ് പോലുള്ള സ്ഥലങ്ങളൊന്നും ഇപ്പം അവൈലബിൾ അല്ല അവിടെയൊക്കെ വെള്ളം കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് തൊള്ളായിരം കണ്ടി അങ്ങനത്തെ സ്ഥലത്തൊക്കെ ട്രക്കിങ്ങിനൊക്കെ ആയിട്ടാണെങ്കിൽ നമുക്ക് പോവാം പിന്നേ മുത്തങ്ങയിൽ നമുക്ക് ഫോറസ്റ്റിനുള്ളിൽ ഡ്രൈവൊക്കെ പോവാൻ പറ്റും ട്രക്കിങ്ങിന് പോവാൻ പറ്റും അങ്ങനെ ഒക്കെയാണ് ആ ഇപ്പം ക്ലൈമറ്റ് ഭയങ്കര മോശമാണ് മഴ ആയതുകൊണ്ട് ആ ഓക്കെ ഇല്ല നമുക്ക് ആൾമോസ്റ്റ് ഇപ്പോൾ ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും പോവാൻ പറ്റും മാഡം എന്താ പറയുക മഴക്കാലത്ത് ഈ ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ ഈ ഡാമുപോലുള്ള സ്ഥലങ്ങളൊക്കെയാണ് മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനത്തെ സ്ഥലത്താണ് പോവാൻ ബുദ്ധിമുട്ടുള്ളൂ ബാക്കി നമുക്കൊരുവിധം ഓൾമോസ്റ്റ് ആ ട്രക്കിങ്ങൊക്കെ ഓൾമോസ്റ്റ് നമുക്ക് എല്ലാ സ്ഥലത്തും ചെയ്യാൻ പറ്റും മാഡം

അവിടെ ഒക്കെയെന്ന് പറയുമ്പോൾ നമുക്ക് മഴ ആയതുകൊണ്ട് കയറ്റി വിടുമോയെന്ന് കറക്ട് ഡീറ്റെയിൽ അറിയില്ല ഞാനൊന്ന് അവരോട് വിളിച്ച് അന്വേഷിച്ചിട്ട് മാഡത്തിനോട് പറഞ്ഞാൽ മതിയോ മാഡം എന്നത്തേക്കാണ് എത്തുന്നത് ആ ഓക്കെ ഇന്ന് ഈവനിംഗിനുള്ളിൽ തന്നെ ഞാൻ മാഡത്തിനോട് പറയാം അത് ആ നമ്മൾക്ക് റിസോർട്ട് സെറ്റപ്പ് ഇവിടെ ഉണ്ട് മാഡം റിസോർട്ടൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തു തരാം ആ ക്യാബ് ഞങ്ങൾ അറേഞ്ച് ചെയ്തുകൊളളാം മാഡം എവിടെയാണ് വന്ന് ഇറങ്ങുന്നത് കോഴിക്കോടാണോ ആ കോഴിക്കോട് അവിടെനിന്ന് നമ്മൾ പിക്ക് ചെയ്തുകൊളളാം ഏഴ് പേരല്ലേ ഓക്കെ സെവൻ സീറ്ററ് ഒരു വണ്ടി ഞാൻ ബുക്ക് ചെയ്തുകൊളളാം പാർക്കുണ്ട് വൈത്തിരി പാർക്കുണ്ട് പിന്നെ പഴശ്ശി പാർക്ക് അങ്ങനെ കുറേ ആ പഴശ്ശി പാർക്ക് വണ്ടിക്കടവും ഉണ്ട് മാനന്തവാടിയും ഉണ്ട് അങ്ങനെ രണ്ട് സ്ഥലത്തുണ്ട് കോഴിക്കോടു നിന്ന് നമ്മൾ ഏകദേശം വയനാട്ടിലേക്കാണെങ്കിൽ നൂറ് കിലോമീറ്റർ പുൽപ്പള്ളി ഏരിയയിലേക്കൊക്കെ നൂറ് നൂറ് കിലോമീറ്ററിനടുത്ത് വരുന്നുണ്ട് മാഡം

ചാർജ് നമുക്ക് അറേഞ്ച് ചെയ്യാം മാഡം മാഡത്തിൻ്റെ നമുക്ക് പരമാവധി ഡിസ്ക്കൗണ്ട് ഇട്ട് തന്നെ ചെയ്തു തരാം

ആ ഓക്കെ മാഡത്തിനെ ഞാൻ ഈവനിംഗിനുള്ളിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് പടിഞ്ഞാറത്തറ ഡാമിൻ്റെ കാര്യമൊക്കെ ചോദിച്ചിട്ട് ഞാൻ മാഡത്തിനെ അറിയിച്ചുകൊളളാം